ഇപ്പോൾ എൻ്റെ ശേഖരത്തെ നല്ല രീതിയില് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ഗവേഷണം കാര്യങ്ങളൊക്കെ അവര് നടത്തിയിട്ടുണ്ട് കാരണം ഞാൻ കൂടുതലായിട്ട് ശേഖരിച്ച് വയ്ക്കുന്നത് സ്റ്റാമ്പ് പിന്നെ കോയിൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഞാന് ശേഖരിച്ച് വയ്ക്കാറും എല്ലാം ചെയ്യാറ് നമ്മള് പഴയ രീതിയിലുള്ള വസ്തുക്കള് അതായത് പഴയ റേഡിയോ പഴയ രീതിയിലുള്ള പാത്രങ്ങള് പഴയതായിട്ട് ഇപ്പോൾ മീൻ പിടിക്കുന്ന ടൈപ്പുള്ള പലതരം വസ്തുക്കള് കാര്യങ്ങളൊക്കെ ഞാൻ ശേഖരിച്ച് വയ്ക്കാറുണ്ട് പിന്നെ നാണയങ്ങള് നോട്ടുകള് പഴയ തരം പൈസ അണ അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഞാൻ ശേഖരിച്ച് വയ്ക്കാറുണ്ട് എനിക്കിതൊരു ഹോബി മാത്രല്ല എനിക്ക് എന്താ പറയുക ഒരു ഇത് പാഷനും കൂടിയാണ് ഈ ഈ ഒരു സംഭവം ശേഖരിച്ച് വയ്ക്കുന്നതെന്ന് ഒക്കെ പറഞ്ഞ് കഴിഞ്ഞാല് ഇപ്പോൾ ഇവര് ഇതൊക്കെ പരിശോധിക്കാറും എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് ഇതൊക്കെ ഒറിജിനലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പരിശോധിക്കാറുണ്ട് അപ്പം പഠനങ്ങള് കൂടുതലായിട്ടും നടത്തിയിട്ടുണ്ട് അപ്പം എൻ്റെടുത്ത് ഇരിക്കുന്നതെല്ലാം ഒറിജിനലാണെന്ന് ഇവരെനിക്ക് സെർട്ടിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കൂടുതലായിട്ടും എല്ലാ കാര്യങ്ങളും ശേഖരിക്കുന്നത് എൻ്റെയൊരു പാഷൻ മാത്രമായിട്ടാണ് അപ്പോൾ എന്താ പറയുക നല്ല രീതിയിലെല്ലാം എനിക്ക് ശേഖരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടും ഉണ്ട്